ഇപ്പോൾ ഞാൻ പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണമെന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു തൊഴില് അത് തന്നെയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ടും പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രചോദനവും കാര്യങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ അവർക്ക് അവരുടെ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തൊരു വിഗ്രഹമാണെങ്കിലും പ്രതിമ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പം അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അതായത് ഇപ്പം അവര് എങ്ങനെ എടുക്കും ഇപ്പോൾ നമ്മൾ ഒരു വിഗ്രഹം ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞാല് ഒരു കസ്റ്റമർ അതായത് നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അവര് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ വിഗ്രഹം ഉണ്ടായാൽ മതി അതിനിപ്പോൾ പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ഒരു നമുക്ക് ഭയങ്കര ഇതായിരിക്കും നമ്മൾ അത് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ ഒക്കെ ആയിട്ട് ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആയിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഞാന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം അതൊരു എന്താ പറയുക നല്ലൊരു വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ ഒക്കെ